ഇവിടെ പ്രാദേശിക കലാകാരന്മാരെയും പലവിധ കരകൗശല വിദഗ്ധരും ഞങ്ങളുടെ പ്രദേശത്ത് ഒട്ടനവധി അല്ലെങ്കിൽ കുറേയധികം പരിപാടികളും ക്യാമ്പുകളും നടത്താറുണ്ട് അതിന് സാധിക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണെന്ന് വച്ചാൽ അതിന് നമ്മുടെ ഈ ക്യാമ്പുകൾ നടക്കും നടത്തുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട് അതിൻ്റെ അവരുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു സംഭവം എന്നു വച്ചാൽ അവരുടെ ആ ക്യാമ്പ് നടത്തുന്നതിന് നടത്തുന്നതിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അത് എന്തിനെക്കുറിച്ച് എന്തിന് വേണ്ടിയിട്ടാണ് ആ ക്യാമ്പ് നടത്തുന്നത് അതിനോടുള്ള ആ ഒരു അനന്തരമില്ലാത്ത ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ഒരാൾ പാട്ട് ക്യാമ്പ് നടത്തുകയാണെങ്കിൽ അതായത് പാട്ടിൽ ഒരു കച്ചേരി മാത്രമല്ലാണ്ട് അതിൻ്റെ ഒരു വർക്ക് ഷോപ്പ് തന്നെ നടത്തുകയാണെങ്കിൽ അത് അത് അവർ നടത്തുന്നത് ആളുടെ സന്തോഷമാണ് ആ അറിവ് ബാക്കിയുള്ളവരേയും എത്തിക്കപ്പെടണം എന്നുള്ളതിൻ്റേയും ഒരു ആഗ്രഹവും എല്ലാം ഒത്തുചേർന്നു വരുമ്പോൾ ആണ് അങ്ങനെയൊരു പരിപാടി നടക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ഷാപ്പ് അത് നടത്തുന്നതിന് ഈ കലാപരമായ ബന്ധം വേണമെന്നില്ല ആ കലയോടുള്ള ഇഷ്ടം മാത്രം മതി അങ്ങനെയിരിക്കുമ്പോഴാണ് ഇവിടെ കുറേയധികം ആൾക്കാർ അതിനുവേണ്ടി ഇറങ്ങി ചെല്ലുന്നത് ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ അത് ആ നാടിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കും ഐ മീൻ വളർച്ചയെ വളർച്ചയോട് സഹായിക്കും